ഹലോ ഞാൻ ഈ തവണ ഈയെടെയെയ് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഓൺലൈൻ വഴി ഒര് ഹാൻബാഗ് വാങ്ങിയിരുന്നു വളരെ മോശമായിരുന്നു കാരണം രണ്ടു മൂന്ന് ദിവസം ഞാനത് യൂസ് ചെയ്തു ഇടയ്ക്ക് വെച്ച് അത് റോട്ടില് വെച്ച് അത് പൊട്ടിപ്പോയി അതിൻ്റെ വള്ളി ഞാനാകെ നാണം കെട്ടുകൊണ്ടായി പോയി നിങ്ങളിങ്ങനത്തെ സാധനങ്ങള് യൂസ് ഓൺലൈൻ വഴി പർച്ചെയ്സിങ് നടത്തിക്കഴിഞ്ഞാൽ മ്മ കസ്റ്റമറ്കള് നിങ്ങൾക്ക് ഇല്ലാണ്ടാകും നല്ല സാധനങ്ങളും നിങ്ങള് ഓൺലൈ ഓൺലൈൻ വഴി വിടാൻ നോക്കുക ഇനിയായാലും നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഈ